ഇന്നത്തെ കാലത്ത് പണ്ടുള്ളതിനെക്കാൾ വെച്ച് താരതമ്യേനെ വളരെ അധികം കുറവാണ് ബാലവേലയുടെ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എൻ്റെ പട്ടണത്തിലും നഗരത്തിലുമായി ബാലവേല ഇപ്പോൾ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഉള്ളത് ഇത് നിർത്താനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ചൈൽഡ് ഹെല്പ് ലൈൻ പോലുള്ള പ്രവർത്തകർ മുന്നോട്ട് വരുന്നത് തന്നെയാണ് ഈ ജോ ഈ കുട്ടികൾ കൂടുതലും ബാല വേല ചെയ്യുന്നത് ചില ഹോട്ടലുകളിലും ഉള്ളിലുക ഉള്ളിലും മറ്റുമായാണ് അത് ആളുകൾ അധികം കാണാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പഴും ബാലവേലയ്ക്ക് ബാലവേല അനുഭവിക്കുന്ന കുട്ടികൾ ജോലി ചെയ്യേണ്ടി വരുന്നത് ഇത്തരം ചിലയിടങ്ങളിലാണ്